എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഫേസ് ക്രീം ആണ് അപ്പം ഫേസ് ക്രീമ് ഞാന് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിപ്പം ഒരു പിന്നെ ഒരു പത്ത് ദിവസമായി എന്തായാലും അപ്പ എൻറ്റൊരു ഫ്രണ്ട് യൂസ് അതായത് അവളാണ് ആദ്യം മേടിച്ചത് അപ്പം അവളുടെ വേറൊരു ഫ്രണ്ട് ഫ്രണ്ടിന് നല്ല അത്യാവശ്യം നല്ല പിന്നെ റിസൾട്ട് കിട്ടീന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് അപ്പം രണ്ടാമതാണ് അതായത് അത് കഴിഞ്ഞിട്ടാണ് അവള് മേടിച്ചത് എൻ്റെ ഫ്രണ്ട് മേടിച്ചത് അപ്പം അവള് പറഞ്ഞ് അവള് ഒരു മാസത്തോളം യു യൂസ് ചെയ്ത് അത്യാവശ്യം ഇപ്പം എൻ്റെ കൂടെ നിക്കുന്നതാണല്ലോ അപ്പം എനിക്ക് തന്നെ മനസ്സിലാകും അവളുടെ മുഖത്തത്തെ കുരു കാര്യങ്ങളൊക്കെ പോയി സ്കിൻ കുറച്ച് നല്ല ബ്രൈറ്റായി ബ്രൈറ്റായി എനിക്ക് തന്നെ തോന്നുന്നു നല്ല വൈറ്റനിങ്ങൊക്കെ കിട്ടി അപ്പം അങ്ങനെയാണ് ഞാന് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് അതായത് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല അതായത് എൻ്റെ മുഖത്തിനക്കെ നല്ലൊരു തിളക്കം വന്ന പോലെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത് പിന്നെ പുറമെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ അതായത് വല്ലാണ്ട് വെളുത്തൂന്നല്ല പുറമെ ആൾക്കാരൊക്കെ കാണുബോളിങ്ങനെ പറയും ആ നല്ല നിറം വച്ചിട്ടൊണ്ടല്ലോ എന്താ തേക്കുന്നേന്നക്കെ ചുമ്മാ തെക്കും ചോദിക്കും അപ്പം ഞാനാരോടും തേക്കുന്നൊന്നും പറയില്ല അപ്പ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല റിസൾട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി നല്ലൊരു ഫേസ് ക്രീം തന്നെയാണ് ആ ഞാൻ യൂസ് ചെയ്തത്